ഞങ്ങളുടെ അവിടെ ഇതല്ലേ ഉള്ളൂ ഞങ്ങളുടെ ഇവിടെ ഇതല്ലേ എന്ത് മാത്രം ആൾക്കാരാണ് പുറത്തൂന്നൊക്കെ വരുന്നതെന്നറിയാവോ ഫാമിലിയ നല്ല അടിപൊളിയാ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഉണ്ട് ഒരു സ്ഥലത്ത് വണ്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ സ്ഥലം മറ്റൊരു സ്ഥലത്ത് സൈഡി പാർക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ അത് റോഡ് അരികിലാണ് മറ്റത് വേറെ നല്ല വൈഡായിട്ടുള്ള കുറച്ച് നല്ല ഏരിയ ഒക്കെയുള്ള ചെറിയ ചെറിയ ഫാമിലീസിന് ഇരിക്കാൻ പറ്റിയ ചെറിയ ഷെഡ് പോലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആ ഹബ് ഹബ് ഒക്കെയുള്ള ഉള്ള അതെ

എല്ലാ ഐറ്റവും ഉണ്ട് മീനൊക്കെ വള്ളത്തെ കിടക്കാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് പറഞ്ഞാൽ അന്നേരപ്പം തന്നെ ഈ ആറ്റ് മീനൊക്കെ ഈ വരാൽ ലൈവ് ലൈവ് ഫുഡ് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഫാമിലി ആയിട്ട് വരാം ഇഷ്ട്ടം പോലെ ഫാമിലി ആയിട്ട് പു പുറത്തൂന്നൊക്കെ വരുന്നവർ മറ്റു ജില്ലകളീന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഞായർ ശനിയൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ

അതിന്റെ ഇടയ്ക്കാണ് ആ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ അതിന്റെയൊക്കെ അപ്പുറം പന്നിയൂരിന്റെ ഒക്കെ അവിടുന്ന് കുറച്ചും കൂടെ ഒരൂ അര മുക്കാൽ കിലോമീറ്റർ കൂടെ മുമ്പോട്ട് പോകണം നല്ല സൂപ്പർ ചെത്ത് കള്ള് കലക്ക് ഒന്നും അല്ല നല്ല സൂപ്പർ ചെത്ത് കള്ളാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുറത്തൂന്ന് ആൾക്കാര് വരോ കുടുംബം കുടുംബസമേതാ വന്നേ എല്ലാവരും പിള്ളേര് വരേ കഴിക്കും ചെത്തി വരുന്ന നല്ല സൂപ്പർ കള്ള് തിരക്ക് ദിവസം ഒത്തിരിപ്പേർ വരുന്നുണ്ട് ഒത്തിരിപ്പേർ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുമരകത്ത് അവിടെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കിളിക്കൂടെന്ന് പറഞ്ഞ അവരൊക്കെ പോകുന്നതാന്ന് പറഞ്ഞു ആ അവരൊക്കെ അവിടെ പോയിട്ടുള്ളതാന്ന് പറഞ്ഞു അവിടെ ഒത്തിരി ആൾ വരും

പാർക്കിങ് ഒന്നും ഇല്ല അപ്പം ഫാമിലി ഒന്നും അവിടെ അധികം വരത്തില്ല മേടിച്ചോണ്ട് പോകത്തേയുള്ളൂ അതാണ് നിങ്ങൾക്ക് എത്ര എത്ര പേർക്ക് വേണം ഞായറാഴ്ച്ചയൊക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് സൂപ്പർ ഫുഡാ സൂപ്പർ ഫുഡുവാ പിന്നെ കുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യം ഇല്ല നിങ്ങൾ വന്ന് ലൈവ് ഫുഡല്ലേ വന്ന് കാണിച്ച് കൊടുക്കാൻ വിളിക്കുക കറി വെക്കുക വറുത്ത് ആണേ വറുത്ത് കറി ആണേ കറി എങ്ങനെ വേണേലും ഷാപ്പുകളിലെ റേറ്റ് സാറിന് അറിയാലോ ഈ ഫാമിലിയായിട്ട് ഉല്ലസിക്കാൻ വരുമ്പോൾ ഈ ഷാപ്പിലെ റേറ്റ് ഒക്കെ സാറിന് അറിയാലോ

ആ കുഴപ്പം ഒന്നും ഇല്ല പറയാം നമ്മളെ ഒരു സുഹൃത്താണ് നമ്മളെ ഒരു സുഹൃത്താണ് വിളിച്ച് പറഞ്ഞാൽ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ